ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാവി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു അതായത് ആദ്യമൊക്കെ ഞാനിപ്പോൾ ഡ്രൈവർ ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പിന്നെ നല്ലൊരു ജോലി കിട്ടണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമുക്ക് ആ പൈസകൊണ്ടും പിന്നെ ഭയങ്കര നയ്പ്പായതുകൊണ്ടും നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നി ണ്ടെ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ട് നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലിയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടിയിട്ട് പി എസ് സിയും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് പി എസ് സിയിൽ പലതിനും ജനറൽ നോളേജ് അങ്ങനത്തെ എല്ലാരീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പി എസ് സി ക്ലാസിന് അങ്ങനത്തെ ക്ലാസുകൾക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ സർക്കാർ സർക്കാർ ജോലി കിട്ടുവാണെങ്കിൽ വളരെ നല്ല നല്ലതായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലമായിട്ട് ചെറിയൊരു ജോലിയും ചെയ്തിട്ട് അങ്ങനെ പോകുന്നു ഒരു പത്ത് പതിനയ്യായിരം രൂപ സാലറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുമോ എന്ന് വലിയ ഉറപ്പില്ല അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ജോലിയിട്ട് തിരഞ്ഞെടു